നമ്മുടെ ജില്ലയിൽ ഡോക്ടർമാർ ഒരോരുത്തർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ജില്ലാ ആശുപത്രിയിൽ മാത്രമാണ് അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടർമാർ അതായത് ജനറൽ ഡോക്ടർ ഉണ്ടാകും എല്ലിൻ്റെ ഡോക്ടർമാരുണ്ടാകും ഇപ്പോൾ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഡോക്ടർമാർ ഈ നമ്മുടെ പ്രസവം മാത്രം നോക്കുന്ന ആൾക്കാർ അതുപോലെ എല്ലിൻ്റെ പിന്നേ ക്യാൻ കേൻസർ പേഷ്യൻസിനെ നോക്കുന്ന അങ്ങനത്തെ ഡോക്ടർമാർ ഓരോ രീതിയിലുള്ള ഇപ്പോൾ ഇ എൻ ടി ഡോക്ടർമാർ ത്വക്ക് അങ്ങനത്തെ രോഗങ്ങൾ നോക്കു നോക്കുന്നത് അപ്പോൾ അങ്ങനെ ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമാണ് നമ്മൾ മെയിനായിട്ടങ്ങനെ സർക്കാരിന്റെ അതിൽ കണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഇപ്പോൾ നമ്മടെ കുഴൽമന്ദം താലൂക്ക് ആശുപത്രിയിൽ പല്ലിന് ഡോക്ടർമാർ വന്നിട്ടുണ്ട് പിന്നേ ബാക്കിയുള്ളതൊക്കെ ഇതേ പറഞ്ഞതു പോലെ ജനറൽ ഡോക്ടേഴ്സാണ് അപ്പോൾ ഇവർക്കെല്ലാം എല്ലാത്തിൻ്റെയും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കും പിന്നെ അഥവാ കുടുതൽ പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ ഈ ജില്ലാ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്നതാണ് അതു പോലെ നേഴ്സ്മാരുടെ കാര്യങ്ങളാണെങ്കിൽ അത്യാവശ്യം എല്ലാ ആശുപത്രികളിലും ഇപ്പോൾ മിനിമം ഒരു പത്തോ പതിനഞ്ചോ നേഴ്സ്സമാരും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ലേഡി ഡോക്ടേഴ്സ് ഉണ്ടാകും അതുപോലെ അപ്പോൾ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനുള്ള അത്യാവശ്യം വേണ്ട നേഴ്സ്സമാരും ഡോക്ടർമാരും എല്ലാ ആശുപത്രിയിലും ഉണ്ടെന്ന് തന്നെയാണ് പിന്നെ നമ്മൾ പ്രൈവറ്റ് നോക്കുകയാണെന്ന് പറയുമ്പോൾ പറയേണ്ട ആവശ്യമില്ല അവിടെ എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രാഥമികമായിട്ടുള്ള ചികിത്സ കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്പറേറ്റായിട്ടുള്ള ഡോക്ടർമാർ തന്നെയാണ് മെയിനായിട്ട് നോക്കുക അപ്പോൾ അതിന്റേതായ പക്ഷെ അവിടെ നമ്മൾ കുറച്ച് ഫീസും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കുമെന്നു മാത്രം പിന്നേ നേഴ്സിങ് പഠിക്കാനായിട്ടുള്ള അതുപോലെ പ്രൊബെഷനറി ഇപ്പോൾ നമ്മുടെ ഈ ഡോക്ടർമാരായാലും നേഴ്സ്മാരായാലും അവരുടെ ഈ ഹൗസ് സർജൻസി പിരീഡിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് വരും അപ്പോൾ അവരുടെ ഹൗസ് സർജൻസി പിരീഡിൽ അവർക്ക് പഠിക്കുകയും ചെയ്യാം ഒപ്പം നമ്മുടെ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതുപോലെ ഡോക്ടർമാരായാലും നേഴ്സ്മാരായാലും എല്ലാവരും ആ സമയത്ത് നമുക്കവിടെ കാണാവുന്നതാണ്